നമ്മുടെ രാജ്യത്തിൻ്റെ തനതായ കലാരൂപങ്ങൾ നിരവധിയുണ്ട് കേരളത്തിലെ മികച്ച കലാരൂപങ്ങളിൽ ഒരു കലാരൂപമാണ് കഥകളി വിദേശികളൊക്കെ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കലാരൂപമാണ് കഥകളി നമ്മൾ കാണിക്കാനും താൽപര്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കഥകളിയാണ് പിന്നെ പുരാണ കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് കഥകൾ കഥകളിയിൽ കൂടുതൽ പറയുന്നത് എന്നാൽ പിന്നെ കഥകളിയിൽ കൂടുതൽ വേഷങ്ങളൊക്കെ ഉണ്ട് അവയിൽ ചിലതാണ് പച്ച കത്തി കരി എന്നിവയൊക്കെയാണ് കഥകളിയിൽ പിന്നെ മോഹിനിയാട്ടം കുച്ചിപ്പുടി ഭാരതനാട്യം എന്നിവയൊക്കെ വിദേശികൾക്ക് വിദേശികൾ എല്ലാവരും കൂടുതൽ അതൊക്കെ കണ്ട് കാണേണ്ടതാണ് അതൊക്കെ കലാരൂപങ്ങളാണ് പിന്നെ എന്താണ് പറയുക നമ്മൾ ഓരോ കലാരൂപങ്ങളിലും അതിൻ്റേതായ ഓരോരോ മുഖ മാറ്റങ്ങളെല്ലാം ഇതിനകത്തുണ്ടാകും പിന്നെ അത് വിദേശികളൊക്കെ കൂടുതലും ആസ്വദിക്കുകയും ചെയ്യും നമ്മളെ ഓരോ മേക്കപ്പും എല്ലാം അതിനനുസരിച്ചിട്ട ആകുമ്പോൾ അവർക്ക് അതിലുമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതരത്തിലുള്ള ഒരു സന്തോഷമൊക്കെ ആയിരിക്കും അവർ വിദേശികൾ അവരൊന്നും ഇങ്ങനത്തെ ഒന്നുമുള്ളൊരു കലാരൂപങ്ങളൊന്നും നമ്മളെ പിന്നെ അവരെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പം പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കലാ രൂപങ്ങളും അവർ നമ്മുടെ മുഖ മാറ്റങ്ങളെല്ലാം കാണുമ്പം അവർക്ക് ഒരു പ്രത്യേക ഒരു ഞെട്ടലായിരിക്കും അവർക്ക് കാണുമ്പോൾ ഉണ്ടാവുക